ആ ഹലോ കെ വി കെ വെജിറ്റബിൾസ് ആ ആ ആ ആ ആ ആ ഇതായി ആ കിട്ടും കിട്ടും ഇതാര് പേര് ആ ഷെഹീം ആ നമ്മളെ ജയറാമേട്ടൻ്റെ മോൻ ആ ഓക്കെ ഓക്കെ ഓക്കെ ആ മനസ്സിലായി നിങ്ങൾ നമ്മുടെ സ്ഥിരം കസ്റ്റമർ അല്ലേ നിങ്ങൾക്ക് എന്താണ് വേണ്ടത് പറഞ്ഞോ ആ ആ ആ ആ ചോറ് അങ്ങനത്തെ ഒക്കെ ഓക്കെ അപ്പോൾ അരീൻ്റെ കണക്ക് ഏകദേശം മനസ്സിലായില്ലേ നമുക്ക് പിന്നെ പച്ചക്കറീൻ്റെ കണക്കെല്ലാം നമ്മൾ ശരിയാക്കി തരാം അത് ഈ ഉള്ളി തക്കാളി എല്ലാ എല്ലാത്തിനും വില കുറവുണ്ട് ഇപ്പം ഇപ്പോൾ ഇരുപത്തിമൂന്ന് റേറ്റ് ഉള്ളിക്ക് ഇരുപത്തിമൂന്ന് നിങ്ങൾക്ക് ഇരുപത് റുപ്യ ഇട്ടിട്ട് കൂട്ടാം നമുക്ക് അതെ ആ എല്ലാ സെറ്റ് ആക്കാം നമുക്ക് ആ കറി അതെല്ലാം ശരിയാക്കാം നമുക്ക് എന്ത് പേടിക്കാനാണ് ആ അത് സെറ്റ് ആക്കാം നമുക്ക് കണക്കല്ലേ ചെറിയ കണക്കല്ലേ ഓക്കെ ഓക്കെ പിന്നെ തക്കാളി എല്ലാം ഉണ്ട് ഫ്രഷ് ഫ്രഷ് ഉണ്ട് സാധനമെല്ലാം പേടിക്കേണ്ട എല്ലാം ഇന്നലെ വന്ന തമിഴ്നാട്ടിൽ നിന്ന് വന്ന ആ മസാല പൊടിയൊക്കെ വേണോ ആ അരിപ്പൊടിയൊക്കെ എല്ലാ സെറ്റ് ആക്കാം എല്ലാമുണ്ട് സാമ്പാറിൻ്റെയും മറ്റേത് രസത്തിൻ്റെ അല്ലേ എല്ലാം ഉണ്ടാവും വെജിറ്റബിൾ മസാല എല്ലാം ഉണ്ട് സെറ്റ് ഉണ്ട് ആ നിനക്ക് സോയാബീൻ വേണോ അതും ഉണ്ട് ഓക്കെ എല്ലാ റെഡി ഉണ്ട് ആ അപ്പോൾ എല്ലാം ശരിയാക്കി തരാം ഞായറാഴ്ച്ച ഓക്കെ അപ്പോഴത്തേക്കും ലിസ്റ്റ് ഇട്ടാൽ മതി വാട്സപ്പിൽ അപ്പം നമ്മയെല്ലാം സെറ്റ് ആക്കാം അപ്പം ആ ലിസ്റ്റ് ഇപ്പം ഏകദേശം എത്ര ആൾ ആണ് കണക്ക് വരുന്നത് മുന്നൂറ് ആൾക്കാരാണോ അപ്പോൾ ഒരു രണ്ട് ചാക്ക് ഉള്ളിയും ഒരു ഒരു ചാക്ക് തക്കാളി പിന്നെ ഉരുളക്കിഴങ്ങായും നാപ്പത് രൂപ മുപ്പത്തഞ്ച് കിലോ എടുക്കാം പിന്നെ പച്ചമുളക് എല്ലാ ആ എല്ലാ ഞാൻ ഡീറ്റെയിൽ ആക്കിയിട്ടിടാം അപ്പോൾ നിങ്ങളുടെ കുക്ക് മറ്റേ ആൾ അഷറബല്ലേ ആ ഓക്കെ ഓക്കെ അവൻ്റെ കയ്യിലുണ്ടാവും ബിൽ അപ്പോൾ ഞാൻ അവൻ്റെ കയ്യിൽ നിന്ന് മേ നോക്കാം